നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചു ചെയ്യാൻ നമ്മൾ ഇടുക്കിയെ സംബന്ധിച്ചുള്ള സ്ഥലത്ത് ആയത് കൊണ്ട് നിലവിൽ ഏലവും കുരുമുളകും കാപ്പിയൊക്കെ ആയിരുന്നു ചെയ്തു കൊണ്ടിരുന്നത് അത് കാലാവസ്ഥ മാറി വെയിലൊക്കെ കൂടി ചൂടു കൂടി അതുകൊണ്ട് ഏല കൃഷിയെ കുറിച്ചു മുന്നോട്ടുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് പിന്നെ വിളകളെല്ലാം കൊടികൾ ആണെങ്കിലും വിത്തു പണി ചെയ്യുന്നതിനെ കുറിച്ചു ഒരു ഇത് വന്നാൽ പഴയതു പോലെ കൊടി കയറി വളരുന്നില്ല അങ്ങനെയുള്ള ഇതൊക്കെയാണ് കുഴപ്പം നിലവിൽ ഈ കാലാവസ്ഥ മാറ്റം ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ടിലേക്ക് കർഷകനെ കൊണ്ടു ആക്കിയിരിക്കുകയാണ് നമ്മുടെ പ്രദേശങ്ങളിൽ ഇപ്പോൾ നിലവിൽ തേയിലയാണ് തേയില ആണെങ്കിലും ഉണക്ക് കൂടി കഴിഞ്ഞാൽ തേയിലയാണെങ്കിലും കുളന്ത് കിട്ടുകയില്ല അങ്ങനെയുള്ള കാപ്പിയാണെങ്കിലും വിളവ് ഉണ്ടാകുകയില്ല പിന്നെ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഏത് കൃഷി ചെയ്താൽ ആണ് മുന്നോട്ട് പോകുക എന്നതിനെ കുറി ച്ച്ച്ചു ഇനി ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടി ഇരിക്കുന്ന ഒരു കാലമാണ് പല കാലാവസ്ഥകൾ ആയത് കൊണ്ട് എന്നു പറഞ്ഞാൽ നമുക്ക് ചൂട് കൂടി അതാണ് മെയിനായ പ്രശ്നം ചൂടു കൂടിപ്പോയപ്പോൾ ഇങ്ങനെയുള്ള കൃഷികളൊന്നും മുന്നോട്ട് കൊണ്ടു പോകാൻ വലിയ ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന കൃഷികളെന്ന് പറഞ്ഞാൽ തേയില ആണ് പിന്നെ കുറച്ചു കൂടിയെല്ലാം പിടിച്ചു നിൽക്കും തേയില പിടിച്ചു നില്ല്കുക എന്നു പറഞ്ഞാൽ തേയില കൃഷിയെ കുറിച്ചു ഇനി ഇപ്പോൾ അത് വച്ചു ആദായമൊക്കെ ആയി വരുന്ന സമയം എന്നു പറഞ്ഞാൽ അതൊരൂ മൂന്ന് നാല് പതിനഞ്ച് വർഷം കൊണ്ടേ ഒരു ഇച്ചരിച്ചേ കൊടുത്ത് എടുക്കാൻ ആകുകയുള്ളു ആകെ ഈ നാല് അഞ്ച് വർഷം ഇത് ഇപ്പോൾ നിലവിലുള്ള കൃഷി കഴിഞ്ഞു കളഞ്ഞേച്ചിട്ട് ചെയ്തു വരുമ്പോൾ നമുക്ക് പല പല ബുദ്ധിമുട്ടുകളാണ് വരുന്നത് കാരണം ഇപ്പം നിലവിൽ

എന്നേ നമുക്ക് ഇത് വേറെ എന്ത് നോക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചു ആലോചിക്കുന്നുണ്ട് കൃഷികൾ മറ്റു നമ്മുടെ പ്രദേശത്ത് വളരുന്ന കൃഷികളെന്ന് പറഞ്ഞാൽ തേയില കാപ്പി കൊടി ഏലം ഇങ്ങനെ രണ്ട് മൂന്ന് കൃഷികളാണ് ഇടുക്കി ജില്ലയിൽ ആയത് കൊണ്ട് ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലും റബറോ മറ്റ് കാര്യങ്ങളോ ഒന്നും പിടിയ്ക്കത്തില്ല അത് അത്കൊണ്ടാണ് ഈ നിലവിൽ ഈ ചെയ്തു കൊണ്ടിരിക്കുന്ന കൃഷി തന്നെ ആളുകൾ തുടരുന്നത് ഈ ചൂട് കൂടിയത് കൊണ്ടും ഒക്കെയാണ് നിലവിൽ ഏലത്തിന് ഇരുവത്തി മൂന്ന് ഡിഗ്രി ഇരുപത്തി അഞ്ച് ഡിഗ്രി കൂടിയ ചൂട് വന്നു കഴിഞ്ഞാൽ ഏല കൃഷി നിന്നു പോകും ഏലം കൊണ്ട് നമുക്ക് പ്രയോജനമില്ലാതെ വരും നിലവിൽ അത് അങ്ങനെ ഒരു ഉള്ള കാലാവസ്ഥ മാറ്റമൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് ആ ഏതായാലും കാലാവസ്ഥയെ കുറിച്ചു ഇതിൽ കൂടുതൽ ല് ഒരു അറിവ് എനിക്ക് ഇല്ല നിലവിൽ എന്തൊക്കെ കൃഷി എന്നു ചോദിച്ചാൽ ഇതൊക്കെയാണ് ഇവിടത്തെ ഇടുക്കി ജില്ലയിലെ സംബന്ധിച്ചുള്ള കൃഷികൾ ആ കൃഷികൾ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളു അതാണ് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ഹലോ ആ ഈ കൃഷി കാലാവസ്ഥ ഓരോന്ന് മാറി വരുന്നതിന് അനുസരിച്ചു ഓരോ കൃഷിയും മാറി മാറി ചെയ്യാനെന്ന് പറഞ്ഞാൽ ഒരു കൃഷി ചെയ്തു അതിന് വിളവ് എടുക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് നിലവിൽ അത് വരെ നമ്മൾ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടു പോകും മറ്റ് കൃഷികളൊന്നും ചെയ്തു വരുന്ന ഒരു ഇത് അത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാണ് കാലാവസ്ഥ എന്തൊക്കെ എങ്ങനെഉക്കെ മാറീം മറിച്ചും വന്നു കൊണ്ടിരിക്കുന്നതാണ് മെയിനായ പ്രശ്നം കാലാവസ്ഥ മാറുന്നതിനെ കുറിച്ചു എന്നതാ പറയുക കാലാവസ്ഥ ഇപ്പോൾ വളരെ ചൂട് കൂടുതലാണ് പിന്നെ നിലവിൽ അതാണ് ചൂടാണ് ഏറ്റവും മേയിനായ പ്രശ്നം ഭയങ്കരമായ അതാണ് ഏറ്റവും പ്രശ്നമായിരിക്കുന്നത് ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും സമയാ സമയങ്ങളിൽ മഴ ലഭിക്കേണ്ട സമയത്ത് മഴ കിട്ടുന്നില്ല വെള്ളവും അതുപോലെ ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നതാണെങ്കിലും കാലാവസ്ഥ മാറുന്നതിന് അനുസരിച്ചുള്ള കൃഷികൾ ചെയ്യാനോ അല്ലേ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള കൃഷി ചെയ്യാനോ മാറി മാറിയൊന്നും പറ്റത്തില്ല നിലവിൽ ഇപ്പ ചെയ്തു കൊണ്ടിരിക്കുന്ന കൃഷികളെ ഒക്കെ ആശ്രയിച്ചേ നമുക്ക് ജീവിക്കാമ്പറ്റത്തുള്ളു ഇപ്പം കൃഷി ചെയ്യാൻ പറ്റത്തുള്ളു കാലാവസ്ഥ മാറുന്നതിന് മനുഷ്യർ ഒരു കുറ്റക്കാർ അല്ലല്ലോ കൃഷി അത് അനുസരിച്ചെന്നും മാറ്റാനും പറ്റികയില്ലല്ലോ ഇ തൊക്കെയാണ് നിലവിൽ

ഏതൊക്കെ വിളകളാണ് അനുയോജ്യമെന്നത് ചോദിച്ചാൽ ഇതാണ് ഇവിടെ നിലവിൽ ഇപ്പം ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂൂ